ആ അതെ പറയൂ

ആ അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവൈലബിൾ ആയിരിക്കും പിന്നെ ആ ഇവിടുത്തെ മീൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയി പിടിച്ച് കൊണ്ട് വരുന്നതാണ് അപ്പോൾ അത്രയും ഫ്രഷായിരിക്കും പിന്നെ നമ്മൾ ഒരു കെമിക്കൽസും ഒന്നും കൂട്ടുന്നില്ല ലൈക്ക് കൊണ്ട് വരുന്ന അങ്ങനെ തന്നെ നമ്മൾ സെയില് ചെയ്യുകയാണ് ചെയ്യുക ഒരു മൂന്ന് മണിയാവുമ്പത്തേക്ക് മുഴുവൻ പോവും അത്രയും നല്ല സെയിലുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ പ്രോബ്ലം വരുന്നില്ല പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതായിരിക്കും കാരണം ഞങ്ങൾ ഒരു കെമിക്കലും ഉപയോഗിക്കുന്നില്ല പിന്നെ അടുത്ത മാസത്തിൽ എന്തായാലും ഉണ്ടാവും ആ മീൻ ഇപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ എല്ലാവരും എല്ലായിടത്തും ഉള്ള മീനുകളൊക്കെയുണ്ട് അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കെന്ന് പറഞ്ഞത് കൊണ്ട് മുള്ള് കുറവുള്ള മീനുകൾ അങ്ങനെ നോക്കുക ആണെങ്കിൽ ചെറിയ മീനുകളുണ്ടാവും വേളൂരി പോലത്തെ മുള്ളൻ പോലത്തെ മീനുകളുണ്ടാവും പക്ഷെ ആ വലിയ മീനുകൾ വേണമെങ്കിലും ഉണ്ട് അപ്പോൾ ഇത് പിള്ളേരാണല്ലേ ആ അത് നമുക്ക് ചെയ്യാം പിന്നെ ഇവിടെ കൂടുതലും ആളുകൾ വാങ്ങുന്നത് കരിമീനാണ് ഇവിടത്തെ കരിമീൻ നല്ല നന്നായി ചിലവുള്ള മീനാണ് അപ്പോൾ അത് വേണമെങ്കിൽ അതും നമ്മൾ ഒരു ദിവസം ചെയ്യാം പക്ഷെ ഇപ്പോൾ എത്ര പേരുണ്ടാവും എത്ര പിള്ളേരുണ്ടാവും നൂറിൻ്റെ അടുത്ത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും നേരത്തെ പറയേണ്ടി വരും ഒരു നൂറ് പിള്ളേർക്ക് ഇപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു മൂവായിരത്തി ഒക്കെ വരും കരിമീനാണെങ്കിൽ സാധാ കുഞ്ഞി മീനുകളാണെങ്കിൽ നമുക്ക് ആയിരം രണ്ടായിരത്തിനുള്ളിൽ ചെയ്യാം ചെറിയ ആ ചെറിയ രീതിക്കാണെങ്കിൽ നമുക്ക് അന്നുള്ള അത് അന്നുള്ള മീനുകളെ നമുക്ക് തരാൻ പറ്റുള്ളൂ പക്ഷെ അത് അപ്പ തന്നെ നമ്മൾ ഡെലിവറി ചെയ്ത് തരും ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയാവുമ്പോൾ കുറച്ച് ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും ചെയ്യേണ്ടി വരും

പിന്നെ ഫ്രഷായിട്ട് പാക്ക് ചെയ്യും എല്ലാ ഇതും ഉണ്ട് അപ്പോൾ സേഫ് ആയിട്ട് നമ്മൾ എത്തിക്കും പിന്നെ വേറെ എക്സ്ട്രാ കുക്കിംഗ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ക്ലീനിംഗ് ആക്ച്വലി ഫ്രീ ആണ് പക്ഷെ ക്ലീനിംഗ് ഇപ്പോൾ ചെതമ്പലൊക്കെ നമ്മൾ കളയും അപ്പോൾ അത് താൽപ്പര്യം ഇല്ലാത്തവർക്ക് ആണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കലുണ്ട് ആ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആ ശരി